ഞാനൊരു പവർ ബാങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഈ മഴക്കാലമായത് കൊണ്ട് തന്നെ കറണ്ടൊക്കെ പോവാണ് വൈകുന്നേരമായി പറഞ്ഞാൽ കാറ്റും മഴയുമ്മൊക്കെ വന്ന് പറഞ്ഞാൽ ലൈൻ കട്ടാകും പവർ കട്ടാണ് അപ്പോൾ ഫോണില് അത്യാവശ്യം നമ്മള് യൂസ് ചെയ്യണ സാധനാണ് ഫോണ് അതും ഇപ്പം കോള് അത്യാവശ്യായിട്ട് കോളൊക്കെ വരണ കൊണ്ട് തന്നെ ഫോണ് യൂസ് ചെയ്യുമ്പോൾ ഫോണിലെ ചാർജ് ഇല്ലാണ്ടിരുന്നാൽ പറ്റില്ല എന്നിട്ടാണ് ഞാൻ പവർ ബാങ്ക് മേടിക്കാൻ ഉണ്ടായത് പവർ ബാങ്ക് വീട്ടില് ഓൺലൈനില് മേടിച്ച് അത് കൊണ്ട് വന്നിട്ട് ഇവിടെ എത്തി എത്തീട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വളരെ ഡാമേജ്ഡ് ആയ രീതിലായിരുന്നു പവർ ബാങ്ക് കാണാൻ പറ്റിയത് അതും ഞാൻ എന്നിട്ട് എനിക്ക് തിരിച്ചയക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാ ആ സാഹചര്യം അതായത് കൊണ്ട് അപ്പം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ പവർ ബാങ്ക് ഭയങ്കര ഹീറ്റാകുവായിരുന്നു ഹീറ്റ് നല്ല പെട്ടന്ന് ചൂടാകും അഞ്ച് മിനിറ്റ് കുത്തി വക്കുമ്പഴേക്കും ചൂടായി ഇതിനു ചാർജ് കേറുമ്പോ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നല്ല സ്ലോലാണ് ചാർജ് കയറണത് ഒരുപാട് ടൈമെടുക്കുണുണ്ട് ചാർജ് കേറാൻ അതക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നി അതേപോലെ നമ്മടെ ഫോണ് ഹീറ്റാക്കുവാണ് ചാർജ് ചെയ്യുമ്പഴേ ആ അപ്പോൾ നല്ല തൊടുമ്പോഴേക്ക് അത് പൊള്ളുവാണ് നമുക്കത് വളരെ ഡിസ്കഫർട്ടായിട്ടാ ഫീല് ചെയ്തത് വളരെ മോശം പ്രോഡക്റ്റായിട്ട് എനിക്കത് തോന്നി പവർ ബാങ്ക് ഞാൻ എന്നിട്ടത് തുറന്ന് നോക്കി അത് ബാക്ക് എങ്ങനെ തുറക്കാൻ പറ്റുക തുറന്ന് നോക്കിയപ്പോൾ ബാക്ടറിയൊക്കെ ബൾജായിരിക്കുവായിരുന്നു വളരെ മോശം എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്